നമ്മുടെ നാട്ടിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രം വന്നു കഴിഞ്ഞാൽ അത് ആ നാട്ടിലുള്ളതിനും ഇല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള അവർക്ക് ഒരു ഒരു ചെറിയ വരുമാനമാണ് അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ ഒക്കെ ആണേലും പഞ്ചായത്തിൻ്റെ വരുമാനമാണ് അപ്പം സർക്കാരിൻ്റെ ചെറിയ ഗസ്റ്റ് ഹൗസുകളോ അങ്ങനെയൊക്കെ പണിത് ഇടുകയാണെന്നുണ്ടെങ്കിൽ വാടകയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു തുച്ഛമായ വരുമാനം കിട്ടും അതുപോലെ തന്നെ നല്ലൊരു വഴി വിനോദ സഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ആവുമ്പം നല്ല പുറത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതാണ് അപ്പം ആ ആൾക്കാരെയൊക്കെ നമ്മൾ ആകർഷിക്കാനായിട്ട് വഴിയും വഴികളിൽ വഴിയോരത്ത് ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ നമ്മൾ റെഡിയാക്കി ഗവൺമെൻ്റ് നിർദ്ദേശങ്ങളൊക്കെ അതൊക്കെ ചെയ്തു കൊടുക്കണം അതുപോലെതന്നെ കറണ്ട് ഒക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ പോവുമ്പോൾത്തന്നെ അത് എന്താണെന്നുള്ള പെട്ടെന്ന് നോക്കിയും അതിനുള്ള സജ്ജീകരണങ്ങൾ പെട്ടെന്ന് ചെയ്യുകയൊക്കെയാണ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഗസ്റ്റ് ഹൗസുകളൊക്കെ പണിതിട്ട് മഴ പെയ്യുമ്പോൾ വെള്ളമൊക്കെ അകത്ത് കയറുകയാണെങ്കിൽ അത് പെട്ടെന്ന് വെള്ളം മാറ്റാനുള്ള പരിപാടി കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ പഞ്ചായത്തിന് കൊടുത്തിട്ട് നിർദ്ദേശങ്ങളൊക്കെ അവർ പാലിക്കുകയും അനുസരിക്കുകയൊക്കെ വേണം ചെയ്യാനായിട്ട് അപ്പോഴങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ നമുക്ക് അവിടെ ഒരു വികസനത്തിൽ പഞ്ചായത്തിലേക്കുള്ളൊരു നിർദ്ദേശമൊക്കെ ആയിട്ട് നമുക്ക് വരുന്നത്